അതെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു ഞാന് പി എഫ് സംഭാവനകളിലൊക്കെ പങ്കാളിയാണ് പി എഫ് ഒരുപാട് ഫണ്ടുകളെനിക്കുണ്ട് താനും അപ്പോള് ഈ ഇടയ്ക്ക് ഞാൻ പി എഫ് കയറി നോക്കിയപ്പോള് അതിനകത്ത് പൊരുത്തക്കേടുകളുണ്ട് ഞാൻ പി എഫ് കൊടുത്തിരിക്കുന്ന സംഭാവനകളില് പൊരുത്തക്കേടുകള് ഞാൻ കണ്ടെത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പി എഫെക്കൗണ്ടുകളെല്ലാങ്കൂടി ഏകീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ എല്ലാങ്കൂടൊന്നിച്ച് കൊണ്ടുവന്നാല് ഈ അക്കൗണ്ടിലുള്ള പൊരുത്തക്കേടുകളെല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോള് എനിക്കീ അക്കൗണ്ടുകളൊക്കെ ഒന്നിച്ച് കൊണ്ടുവരണമല്ലോ പക്ഷേ എനിക്ക് എങ്ങനെയാണത് കൊണ്ടുവരേണ്ടതെന്ന് അറിയില്ല കാരണം ഞാനിതിന് മുന്നെ അങ്ങനെ ചെയ്യാമ്പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതിലിങ്ങനെ പൊരുത്തക്കേടുകളുണ്ടാകുമെന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോള് ഇപ്പോള് നോക്കിയപ്പോഴാണ് ഞാനറിയുന്നത് ഇങ്ങനെ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോള് എനിക്കീ പി എഫക്കൗണ്ടെല്ലാങ്കൂടി എങ്ങനാണ് ഒന്നിപ്പിക്കേണ്ടത് അല്ലെങ്കില് ഏകീകരിക്കേണ്ടത് എങ്ങനാണ് എന്നുള്ള പ്രക്രിയ ഒന്നെനിക്ക് അറിയണമായിരുന്നു അതുപോല തന്നെ ഓൺലൈൻ പോർട്ടലാണോ ഉപയോഗിക്കേണ്ടത് അതോ നേരിട്ട് അപേക്ഷ ഞാൻ ഓഫിസില് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എങ്ങനാണ് ഓഫിസുമായിട്ട് ഞാൻ ബന്ധപ്പെടേണ്ടത് അങ്ങനെ അക്കൗണ്ട് ഏകീകരിക്കണം എന്നുള്ളത് ഞാനെങ്ങനെയാണ് ഓഫീസില് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അതിനേക്കുറിച്ചെനിക്കൊന്ന് അറിയണം കാരണം അതറിഞ്ഞാലെ എനിക്ക് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങള് ചെയ്യാന് കഴിയുകയുള്ളു ഓൺലൈൻ പോട്ടലാണുപയോഗിക്കേണ്ടതെങ്കിൽ അതില് ഞാനെന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതിനെന്തൊക്കെ ഞാൻ ഹാജരാക്കേണ്ടി വരും അല്ലെങ്കില് എന്തൊക്ക ഞാൻ അതില് ഫയൽസ് കൊടുക്കേണ്ടി വരും എന്നുള്ളതും കൂടി എനിക്ക് അറിയണമായിരുന്നു അതുപോലെ തന്നെ എന്റെ യു ഐ എന്നും എന്റെ ഇ പി എഫെക്കൗണ്ടുകളുടേയും വിശദാംശങ്ങളും ആവശ്യാനുസരണം അത് ചോദിക്കുന്നതിനനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് കൊടുക്കാന് കഴിയും കാരണം പി എഫിന്റെ നമ്പറും കാര്യങ്ങളുമൊക്കെ എന്റെ കയ്യിലാണല്ലൊ ഇരിക്കുന്നത് അപ്പോള് അത് ആവശ്യം അനുസരിച്ച് ഞാനത് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഓഫിസില് കൊടുക്കണമെങ്കില് ഓഫിസില് കൊടുക്കാം ഓൺലൈൻ പോർട്ടല് വഴി ഹാജരാക്കണമെങ്കിൽ ഓൺലൈൻ പോർട്ടല് വഴിയാണെങ്കിലും ഞാൻ ഹാജരാക്കിക്കോളാം പക്ഷെ എനിക്കത് എങ്ങനെയാണ് മൊത്തത്തിലൊന്നിച്ച് കൊണ്ടുവരാനുള്ളത് എന്നൊന്ന് എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കുമോ